നമ്മൾ പാചകം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി നേരത്തെ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ഒന്നാമത് നമ്മൾ എന്താണ് എന്താണ് പാചകം ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു മുൻധാരണ നമുക്ക് ഉണ്ടാവേണ്ടതാണ് ആ സാധനങ്ങളെല്ലാം അവിടെ ലഭ്യമാണോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഇതെല്ലാം ലഭ്യമാണോ അല്ലെങ്കിൽ ഇതെല്ലാം സാധനങ്ങൾ എല്ലാം അടുക്കളയിൽ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിവയെല്ലാം ഒരു നിശ്ചിത അളവിൽ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഓട്ടപാച്ചിൽ വേണ്ടയെന്ന രീതിയിൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം എടുത്തു വയ്ക്കാവുന്നതാണ് പിന്നെ മറ്റു പാത്രങ്ങളും മറ്റുകാര്യങ്ങളും എടുത്ത് വയ്ക്കുക അതുപോലെത്തന്നെ എല്ലാം ഇതിന് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ മറ്റു കാര്യങ്ങൾ അതുപോലെത്തന്നെ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും എന്തെങ്കിലും പച്ചക്കറി കൊണ്ട് എന്തെങ്കിലും കറിയാണ് ഉണ്ടാക്കണമെന്നു വച്ചാൽ അതു നേരത്തെ തന്നെ മുറിച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ സമയം ലാഭിക്കാൻ സാധിക്കും അങ്ങനെ കുറച്ചു മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈസിയായിട്ടു തന്നെ പാചകം ചെയ്യാവുന്നതാണ്